ഞാനാദ്യം ഡ്രോയിങ്ങ് ക്ളാസ്സ് പഠിക്കാൻ പോയപ്പോഴ് അവിടെ നിന്ന് ഒരാൾ ഡ്രോയിങ് കുറച്ചു പഠിച്ചതിനു ശേഷം ഒരു സാറ് പറഞ്ഞു ഒരാളെ കാണിച്ചു അവിടെ ഉള്ളൊരു പഠിക്കുന്ന കുട്ടീനെ തന്നെ കാണിച്ച് അങ്ങനെ വരയ്ക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് വ്യക്തമായിട്ടും മുഖമൊക്കെ വരയ്ക്കാൻ പറ്റിയിരുന്നു ഡ്രോയിങ്ങ് ക്ലാസ്സില് സാറ് ഒരു നല്ല സാറായിരുന്നു നല്ലോണം പഠിപ്പിക്കും ഡ്രോയിങ്ങിൻ്റെ ട്രികൊക്കെ പറഞ്ഞുതന്നിട്ടുണ്ട് അങ്ങനെയാണ് ആ മോൻ്റെ ഇതെല്ലം എനിക്ക് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റിയിരുന്നത് ആ മോന്ത എല്ലാം വരയ്ക്കാൻ പറ്റിയിരുന്നു